കാളവണ്ടിയോട്ടം ആട് കോഴിപ്പോര് തുടങ്ങിയ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹിക ആഘോഷങ്ങളില് ഞാനിതുവരെ പങ്കെടുത്തിട്ടില്ല എന്നിരുന്നാലും കാള പൂട്ട് മത്സരം നമ്മുടെ നാട്ടില് ഇടയ്ക്ക് നടക്കാറുണ്ട് വണ്ടിയോട്ടം എന്ന ഒരു മൽസ മത്സരം ഈ പ്രദേശത്തൊന്നും കാണാറില്ല അതുപോലെ കോഴിപ്പോര് ആട് മത്സരം ഒന്നും തന്നെ ഈ പ്രദേശങ്ങളില് ഇല്ലാത്തതാണ് എന്നിരുന്നാലും ഇവയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുകയാണെങ്കില് ഇത് ഒരു ശരിയായ പരിപാടിയല്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് ഉള്ളത് കാരണം ആടുകളെ പരസ്പരം ഇടിപ്പി ഇടിപ്പിക്കുന്നതും അതുപോലെ കോഴികൾ ആയുധങ്ങൾ കാലിൽ അല്ലെങ്കില് കെട്ടിവെച്ച് പരസ്പരം കൊത്തി ചാകുന്ന കാലഘട്ടം ഉള്ളതും ആയിട്ടുള്ള പരിപാടികളാണ് എന്നാണ് ഞാന് മനസിലാക്കുന്നത് പക്ഷേ ഇത് പൊതുവേ ഇത്തരം മത്സരങ്ങള് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്